ഇപ്പോൾ നീന്തൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ നമുക്കിപ്പം ജിമ്മിലൊന്നും പോവാണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യം നില നിർത്താൻ വേണ്ടീട്ടുള്ളൊരു ഉപാധിയായിട്ടൊക്കെയാണ് മാറിയിരിക്കുന്നത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നീന്തുന്നത് അനുസരിച്ച് നമ്മളെ ശരീരം വികസിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും നമുക്ക് നല്ല ഉന്മേഷവും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം നല്ല രീതിയിലുള്ള ഒരു കായിക ക്ഷമത നമുക്ക് അതിനകത്തുന്നു ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മുക്ക് കുറെ ഇപ്പോൾ നമ്മളിപ്പോൾ നീന്തുന്ന സമയത്ത് നമുക്ക് ശ്വാസം കുറെ നേരം പിടിച്ചു വെക്കാൻ ഉള്ള ഒരു കഴിവ് കാര്യങ്ങളൊക്കെ കിട്ടും അത് നമുക്കിപ്പോൾ എന്തെങ്കിലുമോരു പെട്ടന്ന് ഒരു അത്യാവശ്യം നമ്മളിപ്പോൾ എവിടെങ്കിലും ഒന്ന് മുങ്ങി പോയാൽത്തന്നെ നമുക്ക് കുറെ നേരം നമുക്ക് ശ്വാസം പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊരു അപകടത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കുറെ നേരം നമുക്ക് പിടിച്ചു നിൽക്കാനൊക്കെ ഉള്ളൊരു കഴിവ് നമുക്ക് നീന്തലിലൂടെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതൊക്കെ നല്ലൊരു പ്രയോജനമായിട്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് പിന്നെ ആ എന്തെങ്കിലൂമോരു അപകടത്തിൽ ആരെങ്കിലൊക്കെ വീണ് കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താനും നമുക്കീ നീന്തൽ കൊണ്ട് നല്ലൊരു ഗുണമാണുള്ളത് അപ്പം എന്തുകൊണ്ടും ഈ നീന്തൽ നല്ല രീതിയിലുള്ള ഒരു ഗുണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്